ഹലോ സ്വിഗ്ഗിയുടെ ഓഫീസ് അല്ലേ ഞാൻ കുറച്ച് മുന്നേ കുറച്ച് ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നേ പൊറോട്ട ബീഫ് കറിയും ആ അതായത് അഞ്ച് സെറ്റാണ് ഓർഡർ ചെയ്തത് ഞങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ കൈയില് കിട്ടി ഇപ്പഴ് ഡെലിവറി ബോയ് കൊണ്ട് തന്നത് ഞങ്ങൾ അയ്യാൾ പോയിക്കഴിഞ്ഞിട്ടാണ് ഞങ്ങള് ഇത് തുറന്ന് നോക്കുന്നത് പിന്നെ നിങ്ങൾ ബീഫ് കറി വെച്ചിട്ട് എത്ര ദിവസായി നിങ്ങൾ എന്തായാലും ഇന്ന് വെച്ചതല്ല നിങ്ങൾ വെറുതെ കള്ള കള്ളം പറയാൻ നിൽക്കണ്ട കാരണം അതില് ഫുള്ള് അതായത് പിന്നെ ബീഫില് പുഴു ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു നമ്മൾ ഒരാൾക്ക് അതായത് നിങ്ങൾ പട്ടിക്ക് ഒന്നുമല്ലലോ കൊടുക്കുന്നത് നമ്മൾ പൈസ കൊടുത്തിട്ട് അല്ലേ മേടിക്കുന്നത് ഇനി നിങ്ങൾ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല നമ്മൾ എന്തായാലും കേസ് കൊടുക്കാൻ പോകുവാണ് കാരണം എന്ന് വെച്ചിട്ടുണ്ടങ്കിൽ ഇതുപോലെ വേറെ ആരെങ്കിലും അറിയാണ്ട് ഒക്കെ കഴിക്കുവാണെങ്കിൽ ചെറിയ കുട്ടികൾ ഒക്കെ കഴിക്കുവാണെങ്കിൽ അവരുടെ അവസ്ഥ എന്തായിരിക്കും ഇപ്പോഴെന്ന് വെച്ചാൽ ഫുൾ ഫുഡ് പോയ്സൺ ആയിട്ട് അവിടെയും ഇവിടെയും മരിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ കേൾക്കുന്നില്ലെ നമ്മൾ ഇത് വിശ്വസിച്ചിട്ട് ഒരു ഫുഡ് മേടിച്ച് കഴിക്കുമ്പോൾ നിങ്ങൾ ഇങ്ങനെയാണോ ചെയ്യേണ്ടത് എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല നമ്മളിനി ഇതായിട്ട് മുന്നോട്ട് പോകുവാണ് ഞങ്ങള് ഒരു പരാതി കൊടുക്കാൻ തന്നെ പോകുവാണ് നിങ്ങള് എന്തായാലും നിങ്ങൾ നിങ്ങൾ ഇത് ഇത് ഒന്ന് അറിയണം എന്ന് വിചാരിച്ച് ഞങ്ങളൊന്ന് പറഞ്ഞതാണ്